ഈയൊരു അവസ്ഥയില് പറയാനുള്ളത് തൊഴിലില്ലായ്മയുടെ മെയിൻ റീസൺ എന്താണെന്നുവെച്ചാല് പോപ്പുലേഷൻ വർദ്ധനവാണ് പോപ്പുലേഷൻ വർദ്ധനവ് തൊഴിലില്ലായ്മയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുകയാണ് കാരണം ഒരു മനുഷ്യന് ജനിക്കുന്ന ഒരുപാട് മനുഷ്യന്മാര് ഈ ഇന്ത്യയില് ഇന്ത്യയിലുണ്ട് രാജ്യം ഇന്ത്യയാണിപ്പം ഏറ്റവും കൂടുതല് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി അതുകൊണ്ട് തന്നെ ഒരുപാട് എല്ലാം മനുഷ്യർക്കും ജോലി സാധ്യതയെന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അതുപോലെതന്നെ ഏറ്റവും ഖേദകരമായ വസ്തുതയെന്താണെന്ന് വെച്ചാല് ഈ ജനങ്ങൾക്കെല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഇന്ത്യ പിറകോട്ടാണ് മറ്റു രാജ്യങ്ങളിലെ പോലെയുള്ള മറ്റു ഡെവലപ്മെൻറ്സ് യുവാക്കൾക്ക് തൊഴിലവസരങ്ങള് സൃഷ്ടിക്കാനുള്ള ഇടങ്ങളുണ്ടാക്കുകയെന്നുള്ള കാര്യത്തിലും ഇന്ത്യ വീക്കാണ് ഒരു ശരാശരി മനുഷ്യന് എന്താണ് ഒരു ശരാശരി ആവറേജ് മനുഷ്യന് തൊഴില് കിട്ടാനുള്ള സാധ്യത ഏറ്റവും കുറഞ്ഞത് ഇവിടുത്തെ കസ്റ്റംസ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിവരുന്ന കാര്യങ്ങള് മറ്റു രാജ്യങ്ങളിലെ ഡെവലപ്മെൻറ്സ് ഐഡിയാസ് സ്വന്തമായിട്ടുള്ള കൈകാര്യകര്ത്തൃത്വങ്ങളും കാര്യങ്ങളുമൊന്നും ഇന്ത്യയിലില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഇന്ത്യക്കുള്ള പ്രശ്നം തൊഴിലവസരങ്ങള് സൃഷ്ടിക്കാന് സർക്കാർ ഒരുപാട് കാര്യങ്ങള് ചെയ്യേണ്ടതുണ്ട് ഈ വിദ്യാഭ്യാസത്തിന് മുന്നോട്ടുവെയ്ക്കുന്ന കാര്യങ്ങള് തൊഴിലിനും മുന്നോട്ടുവെയ്ക്കണം തൊഴിലിനായിട്ട് ഒരു ജോബ് വേക്കൻസീസ് ആവറേജ് പീപ്പിൾസ് ആവറേജ് ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് ജോബ് വേക്കൻസീസ് കിട്ടാനുള്ള മാർഗ്ഗങ്ങള് സർക്കാർ കൊണ്ടുവരണം പൈസ കൂടുതല് പണത്തിനെ സ്വാധീനിക്കാതെ മനുഷ്യന്മാർക്ക് എങ്ങനെ ജീവിക്കാമെന്നുള്ള രീതിയില് സർക്കാർ മുന്നോട്ടുവരണം കറപ്ഷൻ നില്ക്കണം ബ്രൈബറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവായി മാറണം എന്നാലേ ഈയൊരു അവസ്ഥയില് യുവാക്കൾക്ക് ഈ നാട്ടില് ജോലിയോടുകൂടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഈയൊരു കാലഘട്ടത്തെ പ്രത്യേകിച്ചും സർക്കാര് ടാക്സുകള് കുറയ്ക്കണം യുവാക്കൾക്ക് ജീവിക്കാനുള്ള അവസരങ്ങളുണ്ടാക്കുന്നത് തൊഴിലവസരങ്ങള് മാത്രം നേടിക്കൊടുത്തുകൊണ്ട് മാത്രമല്ല ജീവിതസാഹചര്യങ്ങള് എളുപ്പമാക്കിക്കൊടുക്കുക കൂടി ചെയ്യണം